ഹലോ ഗീത വെജിറ്റബിൾസ് അല്ലേ അതെയോ അത് ഞാൻ ഇവിടെ നിങ്ങളുടെ അടുത്ത് കുറച്ച് ദൂരമാണ് ഒരു പത്ത് പതിഞ്ഞഞ്ച് മിനിറ്റ് ദൂരമുണ്ട് അപ്പോൾ നിങ്ങളെ അടുക്കൽ എല്ലാ വെജിറ്റബിൾസും കിട്ടില്ലേ എല്ലാ പച്ചക്കറികളും എല്ലാം ഉണ്ടല്ലേ ആ നമുക്ക് അത് നമുക്ക് വീട്ടിൽ ഗസ്റ്റ് വരുന്നുണ്ട് അപ്പോൾ പിന്നെ പെട്ടെന്ന് നമുക്ക് വന്നിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാണ് അപ്പം പിന്നെ ഇത് കൊടുത്തയക്കാൻ പറ്റുമോ ഇപ്പം പാഴ്സല് ആരെങ്കിലും ഉണ്ടാവുമോ കിട്ടുമോ ആ ആ പറ ആ ആ ഒരു പത്ത് ആ ആ രാത്രിക്കാണ് അപ്പോൾ അത് കുറച്ച് നമുക്ക് വന്നിട്ട് വാങ്ങാനുള്ള ഇതില്ല തിരക്കായത് കൊണ്ട് അപ്പോൾ കുറച്ച് സാധനങ്ങളെ ലിസ്റ്റ് ഞാൻ പറയാം അതെല്ലാം ഒന്ന് തന്നെങ്കിൽ ആ ആ ആ ആയിക്കോട്ടെ ഞാൻ അത് എന്നാൽ പറയാം അത് സാമ്പാറിൻ്റെ എല്ലാ കഷ്ണങ്ങളും വേണം പിന്നെ അവിയൽ കൂട്ട്കറി ആ അതെല്ലാം അതിന് പറ്റിയ കടല പിന്നെ ഇത് ഇത് പച്ചക്കായ് പിന്നെ ചേന അതെല്ലാം വേണം പിന്നെ അവിയൽ സാമ്പാറിൻ്റെ ആ സാമ്പാറിൻ്റെ പിന്നെ കഷ്ണം ആയിട്ട് തന്നെ തന്നാൽ മതി അപ്പോൾ പിന്നെ പരിപ്പും എല്ലാം കൂട്ടണ്ടെ അപ്പോൾ കഷ്ണം സാമ്പാർ കഷ്ണം എന്ന് പറഞ്ഞിട്ട് തന്നെ തന്നാൽ മതി പിന്നെ ഇത് അത് കഴിഞ്ഞിട്ട് ആ ആ പിന്ന കുറച്ച് വറക്കാനുള്ള കാര്യങ്ങൾ അത് ഞാൻ നാട്ടിൽ ഉണ്ടായിന്ന് അപ്പോൾ വന്നിട്ട് എല്ലാ ആ ആ ആ പയറോ പയറാം പിന്നെ നാട്ടിൽ പോയിട്ടുണ്ട് അപ്പോൾ വന്നിട്ട് ഇതെല്ലാം അവിടെ നിന്ന് ഇപ്പ്ം എല്ലാം വാങ്ങിയിട്ട് വന്നിട്ട് ആക്കുമ്പഴേക്ക് പെട്ടെന്ന് വിളിച്ചതല്ലെ ഗസ്റ്റ് അപ്പോൾ ഒന്ന് പാഴ്സൽ ആയിട്ട് ആരെങ്കിലും കൊണ്ടുത്തരാൻ ഉണ്ടെങ്കിൽ

അതെ അതെ അതെ അതെ അതെ ആ ആ ആ അപ്പോൾ ഇത് ഒരു സദ്യൻ്റെ ആ കുറച്ച് ആ അവിയലിൻ്റെ കുട്ട് കറിൻ്റെ സാമ്പാറിൻ്റെ എല്ലാ ഒരു കഷ്ണവും പിന്നെ അതിൻ്റെ ഒപ്പം പപ്പടവും ആയിക്കോട്ടെ ആ ആ അതെല്ലാം ഒന്ന് നിങ്ങൾ ആ ആ ഉണ്ട് ഉണ്ട് കുറച്ച് ഗസ്റ്റുണ്ട് ഒരു അഞ്ചാറ് ആൾ വരുന്നുണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് നിങ്ങൾ പാഴ്സലായിട്ട് ഞാൻ എന്നിട്ട് ലൊക്കേഷൻ പറഞ്ഞ് തരാം അതായത് നിങ്ങളെ ഷോപ്പിൽ നിന്ന് ഒരു പത്ത് മിനിറ്റ് ദൂരം ഒരു താഴേക്ക് വന്നാൾ കൂടൽ അമ്പലത്തിൻ്റെ അതിലെ വന്നെങ്കിൽ താഴോട്ട് കുറച്ച് ഉണ്ടാവും ഒരു മൂന്നാമത്തെ വീടാണ് അവിടുത്തേക്ക് ഏൽപ്പിച്ചാൽ മതി ആ ആ അപ്പോൾ അത് അവർ വരുന്നുണ്ട് എന്ന് ആ നിങ്ങൾ അവർ എല്ലാം പാക്ക് ചെയ്തിട്ട് വരുന്നത് ആ ആ അ അ അത് നിങ്ങൾ പാക്ക് ചെയ്തിട്ട് ആ പാക്ക് ചെയ്തിട്ട് അയച്ചിട്ട് അവർ വരുന്ന സമയം അറിയിച്ചാൽ ആ ആ സമയാവുമ്പോൾ അറിയിച്ചോളൂ അപ്പോൾ ഞാൻ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ വിളിക്കാം ഓക്കെ ആ എന്നാാൽ ശരി എന്നാൽ ആ ആ ആ ആ ഓക്കെ എന്നാൽ ശരി